ഒരു കലാകാരനെന്ന് പറയാൻ പറ്റില്ല വരയ്ക്കാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു വരയ്ക്കാനും എഴുതാനൊക്കെ ഒരുപാട് ഇഷ്ടമായിരുന്നു എഴുതുന്ന ശീലമൊക്കെ ഉണ്ടായിരുന്നു എനിക്ക് ഏറ്റവും ഇഷ്ടപെട്ടതാണ് എ എഴുതലൽ എന്നുള്ളത് റൈറ്റിങ്ങ് എന്നുള്ളത് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു ഇതാണ് ഒരു കലയാണ് അതുകൊണ്ട് തന്നെ സ്കൂളിലാണെങ്കിലും മദ്രസയിൽ പോകുന്ന സമയത്തൊക്കെ ആണെങ്കിലും എഴുത്ത് എഴുതുന്ന കാര്യത്തിലൊക്കെ എന്തെങ്കിലും ആസ്വാദനക്കുറിപ്പ് ഡയറി അങ്ങനെയെന്തെങ്കിലും ഒക്കെ എഴുതുന്നതിനൊക്കെ എപ്പോഴും എനിക്ക് തന്നെയാണ് ഫസ്റ്റ് കിട്ടിയിട്ടുള്ളത് അതുകൊണ്ട് തന്നെ എനിക്ക് എഴുതാൻ ഭയങ്കര ഒരുപാട് ഇഷ്ടമായിരുന്നു പിന്നെ പറഞ്ഞാൽ നമ്മൾ പഠിച്ച കാലത്തൊക്കെ ബുക്ക് മേടിക്കണമെങ്കിൽത്തന്നെ ഒരുപാട് പൈസേൻ്റെ ആവിശ്യം ഉണ്ടായിരുന്നു പിന്നെ വീട്ടിലുള്ള ഉപ്പയും ഉമ്മയൊക്കെ കൂലിപ്പണിക്ക് പോയിട്ട് വേണം പൈസ ഉണ്ടാക്കാൻ അവർ പൈസ ഉണ്ടാക്കുന്ന ഞങ്ങൾ മാ മൂന്നു മക്കളും ഉണ്ട് എല്ലാവരെയും പഠിക്കാനും വിടണം സ്കൂളിൽ പോകുമ്പോൾത്തന്നെ ഒരുപാട് പൈസേൻ്റെ ആവശ്യം തന്നെയുണ്ട് സ്കൂളിലേക്കുള്ള ആവശ്യങ്ങളും പി ടി എ ഫണ്ട് അങ്ങനെയുള്ള ആവശ്യങ്ങൾ ഒക്കെയുണ്ട് അങ്ങനെ ബുക്ക് മേടിക്കാനുള്ള പൈസയൊന്നും പലപ്പോഴും കിട്ടാറില്ല അതുകൊണ്ട് തന്നെ സ്ലെയിറ്റിലും അതിലും ഇതിലൊക്കെ എഴുതിയിട്ടൊക്കെയാണ് പഠിച്ചിരുന്നത്